എൻ്റെ ഉപജീവന മാർഗ്ഗം വെളിച്ചെണ്ണ ഉണ്ടാക്കലാണ് വെളിച്ചെണ്ണ എക്സ്പെല്ലറിലാണ് ആട്ടിയുണ്ടാക്കുന്നത് അതിന് എനിക്ക് വൈദ്യുതി ആവശ്യമാണ് വൈദ്യുതി മുടങ്ങുന്ന സമയത്ത് മെഷീൻ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല വൈദ്യുതി മുടങ്ങിപ്പോയാൽ കുറേ ദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷമേ വരാറുള്ളൂ ആ സമയത്ത് ഞാൻ എൻ്റെ മെഷീൻ പ്രവർത്തിക്കാൻ പറ്റാതെ വളരെ വിഷമത്തിലാകും എനിക്ക് ജനറേറ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഷീനോ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന എന്തെങ്കിലും മെഷീനോ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയും ഇല്ല അത് കാരണം വൈദ്യുതിയെ മാത്രം ആശ്രയിച്ചാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത്